ആ നിങ്ങൾ സുഭാഷിൻ്റെ അമ്മയാണോ ആ അവനെ കുറിച്ച് പിന്നെ എൻ്റെ കൈയ്യിൽ ക്ലാസ് ടീച്ചർ വളരെ അധികം കംപ്ലൈൻസ് പറഞ്ഞിട്ടൂണ്ട് ഞാൻ അവൻ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ് അവന് തീരെ അച്ചടക്കം ഇല്ല എന്നാണ് ടീച്ചറ് ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞത് പ്രോഗ്രസ്സ് റിപ്പോർട്ട് നോക്കുമ്പോൾ ആ കഴിഞ്ഞ സെമ്മിനെക്കാൾ ഈ സെമ്മിൽ മാർക്കും കുറവാണ് കുട്ടി പരീക്ഷയുടെ തലേന്ന് വായിക്കാറുണ്ടോ ആ ആ പക്ഷേ ഈ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ കുട്ടി അങ്ങനെ കീഴ്പോട്ട് പോവുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പഠനത്തിലൊന്നും കാര്യമായിട്ട് പുരോഗതിയില്ല അപ്പോൾ നിങ്ങൾ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടൊ പഠിക്കുന്ന സമയത്തൊക്കെ ആ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ണ്ടോ ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോഴത്തെ കാലമല്ലേ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും അതായത് പഠിക്കുന്ന സമയത്ത് കുട്ടി മൊബൈല് യൂസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം പഠിക്കുന്നത് ആ അതെ അതെ ടീച്ചറ് ചില സമയത്തൊക്കെ വാട്സ്പ്പിൽ നോട്ട് ആയക്കാറുണ്ട് പക്ഷേ പിന്നെ കുട്ടികൾക്ക് ഇപ്പം മൊബൈല് ഒരേ സമയം പഠിക്കാനും കളിക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസുള്ളത് കൊണ്ടേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അമ്മ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഞങ്ങൾക്ക് അമ്മ ഒരു കാര്യം ചെയ്യണം ആ അവന് പരീക്ഷയുടെ പ്രിൻറ്റവു ഈ നോട്ട് ഒക്കെ ഒന്ന് പ്രിൻ്റെടുത്ത് കൊടുക്കണം അവൻ്റെ കൈയിൽ എക്സാമിൻ്റെ തലേന്നൊന്നും ഈ ഫോൺ അധികം കൊടുക്കരുത് നോട്ട് നമുക്ക് ഇപ്പം പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാൻ അവൻ അത് ശീലിപ്പിക്കണം പിന്നെ കൂടാതെ അവൻ്റെ കാര്യങ്ങളിൽ ഒക്കെയൊന്ന് ശ്രദ്ധിക്കുകയും വേണം ആ ഒരു വേറെ ഇപ്പം കാര്യമായിട്ട് പ്രശ്നമില്ല നല്ല നന്നായിട്ട് ഒതുങ്ങി പോകുന്നു പഠനത്തിലൊക്കെ തീരെ ഒരു പുരോഗമനം ഇല്ലാത്തത് കണ്ടപ്പോൾ ടീച്ചറ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വിളിച്ച് പറഞ്ഞതാണ് ഒന്ന് ശ്രദ്ധിക്കണം കുട്ടികളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് ആ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ശരി ആ